ഇന്ത്യൻ സമൂഹത്തിൽ മതങ്ങൾക്ക് വലിയ വളരെ വലിയൊരു പങ്കാണ് വഹിച്ചു കൊണ്ടിരിക്കുന്നത് പറയുകയാണെങ്കിൽ മതങ്ങളുടെ പേരിൽ ഇവിടെ അടിപിടി ഉണ്ടാകുന്നു അന്ധവിശ്വാസത്തിൻ്റെ പേരിൽ നരബലി കൊടുക്കുന്നു അതുപോലെ ആൾക്കാരെ വെട്ടിക്കൊല്ലുന്നു അയൽപ്പക്കത്തു പ്രശ്നം ഉണ്ടാകുന്നു അങ്ങനെ വളരെ വലിയ കാര്യങ്ങളാണ് ഇവിടെ വളരെ വലുതും അതുപോലെ തന്നെ കഷ്ടമായ കാര്യങ്ങളാണിവിടെ നമ്മുടെ നാട്ടിൽ നടക്കുന്നത് ഇപ്പം മതത്തിൻ്റെ പേരിൽ ഇപ്പം മതം ആവശ്യമാണ് വിശ്വാസം ആവശ്യമാണ് എന്നു പറഞ്ഞു അതിൻ്റെ പേരിൽ അടിപിടി കൂടുക അതുപോലെ തന്നെ വെട്ടിക്കൊല്ലുക മറ്റുള്ളവരായിട്ട് മിണ്ടാതിരിക്കുക മതം മാത്രം തലയിൽ വെച്ചുകൊണ്ട് നടക്കുക എന്നിവയും എന്നിവയൊക്കെ മതത്തിൻ്റെ കാര്യത്തിൽ വന്നു കഴിഞ്ഞാലും വലിയ പ്രശ്നമാണ് പിന്നെ ചെയ്യേണ്ടത് എന്നു വെച്ചു കഴിഞ്ഞാൽ വിശ്വാസം വേണം മനസ്സിൽ എന്നാൽ മനുഷ്യനെ മനുഷ്യനായിട്ട് കാണണം മറ്റുള്ളവരായിട്ട് ഇടപെട്ട് ജീവിക്കണം സഹപാഠികളെ സഹായം ചോദിച്ചാൽ സഹായിക്കുക ആ നമുക്ക് നമുക്ക് നമ്മളങ്ങോട്ട് സഹായം ചെയ്താലേ ഇങ്ങോട്ട് സഹായം കിട്ടത്തുള്ളൂ അതുകൊണ്ടു തന്നെ മതത്തിൻ്റെ കാര്യം മറ്റുള്ള തള്ള് നിർത്താതെ എല്ലാ കാര്യങ്ങളും മര്യാദക്ക് നോക്കുക പിന്നെ മറ്റു മതങ്ങളിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് മറ്റു മതങ്ങളിൽ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഖുറാൻ ഭയങ്കര ഇഷ്ടമാണ് ഖുറാനിനകത്തെ ചില വാക്യങ്ങളും കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ സ്വന്തം മതക്കാർ രാവിലെ എണീറ്റ് ഇപ്പം മുസ്ലിംസിൻ്റെ മുസ്ലിംസിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ രാവിലെ എണീറ്റ് പള്ളിയിൽ പോകാനുള്ള കാര്യം രാവിലെ തന്നെ നടക്കുക തണുപ്പ് കൊണ്ട് നടക്കുക അതൊക്കെ നല്ല നമ്മുടെ ശരീരത്തിന് നല്ലതാണ് രാവിലെ എണീക്കുന്നതും അതുപോലെ നടക്കുകയും പിന്നെ ഹിന്ദുത്വത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ രാവിലെ എണീറ്റ് ചെരുപ്പിടാതെ അമ്പലത്തിൽ പോവുക അവിടത്തെ ചെറിയ കല്ലുകളിലൊക്കെ കൂടെ നടക്കുമ്പോഴത്തേക്കും നമ്മളുടെ തലച്ചോറിലുള്ള രക്തയോട്ടം രക്തയോട്ടം കൂടുകയും കാര്യങ്ങളൊക്കെ ചെയ്യും അതുപോലെ തന്നെ അമ്പലത്തിൽ പോകുമ്പത്തന്നെ മൊത്തത്തിലൊരു പോസിറ്റീവ് എനർജി ഒക്കെയാണ് കിട്ടുന്നത് പിന്നെ ക്രിസ്ത്യാനിറ്റിയുടെ കാര്യം പറയുകയാണെങ്കിൽ അവരുടെ ഭക്ഷണരീതി ഭയങ്കര ഇഷ്ടമാണ് ഡെയിലിയുള്ള ചിക്കനും പോത്തും കഴിക്കാനും കാര്യങ്ങളൊക്കെ ഓരോ ആഘോഷങ്ങൾ വരുമ്പോഴത്തേനും കാര്യങ്ങളൊക്കെ നടക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് ക്രിസ്മസ് വന്നാൽ തന്നെ അവരുടെ അവിടെ നിന്ന് ബിരിയാണി അതുപോലെയുള്ള കാര്യങ്ങൾ അതുപോലെ മുസ്ലിംസിൻ്റെ വിവാഹ ആഘോഷം കല്യാണത്തിൻ്റെ സമയത്തു അവരുടെ ഭക്ഷണ രീതിയൊക്കെ നല്ലതാണ് ബിരിയാണി കുബ്ബൂസ് ഇതുപോലത്തെ സാധങ്ങളൊക്കെ പിന്നെ ഹിന്ദു ഹിന്ദുക്കളുടെ ഭക്ഷണ രീതിയെക്കുറിച്ചു പറയുകയാണെങ്കിൽ സദ്യ നല്ലതാണ് നല്ല ടേസ്റ്റ് ആണ് കലോറിയും കാര്യങ്ങളൊക്കെ കൂടുതലാണ് എങ്കിലും നല്ലതാണ്